ജോലിയ്ക്കു പുറത്തുള്ള ഹോബികളെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോലി കഴിഞ്ഞു വന്നാൽ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടുണ്ടാവും അഥവാ നമുക്ക് ഫുഡ്ഡ് ഉണ്ടാക്കാൻ പറ്റാത്ത ആ ഒരു സമയമാണെങ്കിൽ നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി പുറത്തുപോയിട്ട് ഫുഡ്ഡ് കഴിക്കലെന്നു പറയുന്ന സംഭവമാണ് കുടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ വേറെന്തെങ്കിലുമാണെങ്കിൽ നമ്മൾ കൂടുതലൊന്നും ക്രാഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹോം ഡെക്കേർസ് ചെയ്യുകയോ അങ്ങനത്തെ സംഭവങ്ങൾ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക